ഇന്ത്യൻ ചരിത്രത്തിലെ രാജാക്കന്മാരെ കുറിച്ചിട്ടും അവരുടെ രാജഭരണത്തിനെ പറ്റിയിട്ടും എല്ലാം ഞാൻ സ്കൂളിൽ പഠിച്ചിട്ടുണ്ട് ആ ആ രാജ്യത്തെ നിയമവും നീതിയും ഇതെല്ലാം നടപ്പിലാക്കുന്നത് ഈ രാജാക്കന്മാരാണ് ഇപ്പോഴുള്ളത് പോലെ കോടതി നിയമവും ഒന്നും അന്നില്ലല്ലോ അപ്പം ഇവർ ഈ രാജാക്കന്മാർ യുദ്ധം ചെയ്തും പോരാടിയുമാണ് നമ്മുടെ രാജ്യത്തിന് ബ്രിട്ടീഷ്ക്കാരിൽ നിന്നും മറ്റു രാജ്യക്കാരിൽ നിന്നും സംരക്ഷിച്ച് നിർത്തിയിട്ടുള്ളത് ഈ ആര്യന്മാർ മൗര്യ രാജവംശർ ചോള സാമ്രാജ്യം ഇങ്ങനെയുള്ള കുറെ വംശം ഇവർ ഇതിലെ രാജാക്കന്മാരും ഇവരൊക്ക ഈ ചരിത്രത്തിൻ്റെ വലിയൊരു ഭാഗമാണ് ഇന്ത്യൻ രാജവംശത്തിൻ്റെ ചരിത്രത്തിലുള്ള ആ അതുപോലെ തന്നെ ഈ ഭാരതം കണ്ട ധീരനായ ഒരു ഭരണാധികാരിയാണ് അശോകചക്രവർത്തി അശോകചക്രവർത്തി ബുദ്ധമത പ്രചാരകനാണ് മൗര്യസാമ്രാജ്യത്തിലുള്ള കരുത്തനും ഭയങ്കര ധീരനുമായ ഒരു ഭരണാധികാരിയാണ് അശോകചക്രവർത്തി ചക്രവർത്തി ധാരാളം യുദ്ധം ചെയ്തിട്ടുണ്ട് നല്ലൊരു നല്ലൊരു ഭരണാധികാരിയാണ് ഈ അശോകചക്രവർത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട യുദ്ധം അറിയപ്പെടുന്നത് അശോകചക്രവർത്തി അറിയപ്പെടുന്നത് കലിംഗ യുദ്ധത്തിലൂടെയാണ് അതിൽ കൂടെയാന്ന് അശോകചക്രവർത്തി പ്രശസ്തി നേടിയത് അതുപോലെ ചക്രവർത്തിമാരുടെ ചക്രവർത്തിയും എന്നും കൂടി നമ്മൾ അശോചക്രവർത്തിനെ അറിയപ്പെടുന്നുണ്ട് ഈ ചക്രവർത്തി ജനങ്ങൾക്ക് വളരെ ഉപകാരമായ പല തീരുമാനങ്ങളും എടുത്തിരുന്നു ജനങ്ങളെ എതിർക്കുവല്ല ചെയ്തത് ജനങ്ങൾക്ക് ഉപകാരപ്രദം ആണെന്നു തോന്നുന്നുള്ള തീരുമാനങ്ങളാന്ന് ഇദ്ദേഹം എടുത്തിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ജനങ്ങൾക്ക് അശോക ചക്രവർത്തിനെ ഇഷ്ടമാണ് ആ ചക്രവർത്തിൻ്റെ ഭരണം ഇഷ്ടമാണ് ഒ ഒരുപാട് യുദ്ധങ്ങൾ ഈ അശോക ചക്രവർത്തി യുദ്ധം ചെയ്തിട്ട് വിജയിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഈ മൗര്യ സാമ്രാജ്യം അതിലുള്ള രാജാക്കന്മാർ പ്രധാന ചാണക്യൻ ചന്ദ്രഗുപ്ത മൗര്യൻ ഇങ്ങനെ ഒരുപാട് പേർ ഇന്ത്യൻ രാജാക്കന്മാർ ചരിത്രത്തിലുള്ള ഇടം നേടിയിട്ടുള്ളതാണ് പുരാതന കാലത്തും അല്ലെങ്കിൽ മധ്യകാലഘട്ടത്തിൽ ഉള്ള തന്നെയും ഈ രാജഭരണമാണ് കൂടുതലും ഉണ്ടായിട്ടുള്ളത് ഈ ചക്രവർത്തിമാരൊക്കെ ഒരുപാട് യുദ്ധം ചെയ്തും കഷ്ടപ്പെട്ടും അവർ നമ്മുടെ ഈ രാജ്യത്തിനെ മറ്റു ബ്രിട്ടീഷുകാരിൽ നിന്ന് സംരക്ഷിച്ചിട്ട് കൊണ്ടു വന്നതാണ് അതാണ് നമ്മൾക്കിന്ന് ഇത്ര സ്വാതന്ത്ര്യത്തിൽ ജീവിക്കാൻ കഴിയുന്നത്